സീസൺ അനിസരിച്ച് ബിസിനസ് നടത്താൻ പറ്റിയ പ്രകൃതി വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് ചക്കയുടെ സീസണിൽ ആണെങ്കില് ചക്ക കൊണ്ട് വിവിധതരം പലഹാരങ്ങൾ ജാമുകള് പിന്നേ ഒക്കെ ഉണ്ടാക്കി വീടുകളിലെത്തിക്കുന്ന സംവിധാനം തുടങ്ങാം മാമ്പഴത്തിൻ്റെ കാലത്താണെങ്കിൽ മാമ്പഴം കൊണ്ടുള്ള കേക്കുകള്

പിന്നെ പച്ചക്കറി കിറ്റുകള്